യെസ് കമിൻ ഇരിക്കൂ ഇന്റെർവ്യൂവിന് വന്നതല്ലേ എന്താണ് പേര് ആ ഇരിക്കൂ എവിടെയാണ് പഠിച്ചത് എവിടെയാണ് അത് ഓക്കെ എക്സ്പീരിയൻസ് വേറെ കമ്പനിയിൽ വല്ലതും ജോലി ചെയ്തിട്ടുണ്ടോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഓക്കെ അവിടെ വല്ല പ്രോജെക്ടും ഒക്കെ അറ്റെൻഡ് ചെയ്തിട്ടുണ്ടോ ആ ഓക്കെ ആ ഓക്കെ അപ്പോൾ ഒരു പ്രൊജക്റ്റാണോ ചെയ്തിട്ടുള്ളത്

ആ ഓക്കെ എന്നാൽ ജോബിനെക്കുറിച്ചൊന്നു പറയാൻ പറ്റുമോ

ഓക്കെ ആപ്പ് ഡെവലപ്പർ ആയിട്ടാണ് എന്താണ് ഇപ്പോൾ അത് നമുക്ക് ചെയ്യാൻ ഓക്കെയാണോ

ഓക്കെ സാലറി ഓക്കെ പെർ മന്ത് ഫിഫ്റ്റീൻ തൗസന്റാണ് ഫിഫ്റ്റീൻ വൺ ഫൈവ് ആറ് മാസം കഴിഞ്ഞാൽ ഇൻക്രിമെന്റാകും എന്താണ് പറഞ്ഞത് മനസിലായില്ല ആ പിന്നെന്തിനാ ഇവിടെ വന്നത് ടെൻത്തിനോ ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഫിഫ്റ്റീൻ തൗസന്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങ് അത്രയാണ് പിന്നെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം വർക്ക് നോക്കിയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും വീടൊക്കെ അടുത്താണോ കമ്പനീൻ്റെ ഇവിടെ വന്നു തിരിച്ചു പോയി പാലക്കാട് തന്നെയാണ് കമ്പനി ഓക്കെ വീടടുത്തല്ലേ നൈറ്റ് ഷിഫ്റ്റ് ഓക്കെയാണോ ഏതാണ് താങ്കൾക്ക് പ്രിഫെറബിൾ ആയിട്ടുള്ളത് മോർണിംഗ് ഷിഫ്റ്റ് ഓർ ഓക്കെ ആണല്ലേ ആ അത് നമുക്ക് നോക്കാം പരിഗണിക്കാം വർക്കിങ്ങ് അവേഴ്സ് നമ്മൾ നയൻ റ്റു ഫൈവ് ആണ് വെച്ചിരിക്കുന്നത് ഫുഡ് പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യും ക്യാന്റീനിൽ നിന്ന് കേട്ടോ പേ ചെയ്യണം പേ ചെയ്യണം പുറത്തുപോയി കഴിക്കണ്ടാണ് മാത്രം ഓക്കെ അപ്പോൾ ഞങ്ങള് വിളിക്കുന്നതാണ് കേട്ടോ ആ ഓക്കെ അയക്കാം ആ ഓക്കെ ഞങ്ങള് നോക്കിയിട്ട് അയക്കാം പേരോ അശ്വതി ഓക്കെ താങ്ക് യു